ഞങ്ങൾ ഇങ്ങനെ പതിനെട്ട് വയസ്സു കഴിയാതെ ലൈസൻസ് ഒന്നും കിട്ടാത്ത കാരണം ഞങ്ങൾ സൈക്കിൾ എടുത്തായിരുന്നു പരമാവധി വീടിൻ്റെ കുറച്ചു ദൂരം ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പം അവിടെ എങ്ങനെയാണെന്ന് വച്ചാൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പോകണമെങ്കിലൊക്കെ നമുക്ക് സൈക്കിൾ തന്നെയല്ലേ പറ്റൂ അപ്പോൾ സൈക്കിളിൽ നമ്മൾ എന്താക്കും ഇങ്ങനെ ഉള്ള വഴിയിൽക്കൂടിയൊക്കെ പോകും പിന്നെ അതു മാത്രമല്ല മടുക്കുമ്പോൾ എന്താക്കും ഇറങ്ങിത്തള്ളും ഇപ്പോൾ കയറ്റമൊക്കെ ചവിട്ടിക്കയറ്റാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവരൊക്കെ എന്താക്കും ഇങ്ങനെ തള്ളിക്കോണ്ട് ഓടിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ രസമാണ് ഒരിക്കലും മടുപ്പ് തോന്നിക്കാറില്ല മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ ഇറങ്ങുക നടക്കുക പിന്നെ വ്യായാമവും നല്ലതാണ് രസമായിരിക്കും എന്താ പറയുക പിന്നെ ഒട്ടും മടുപ്പു വരാത്തൊരു കാര്യം തന്നെയാണ് ഒരിക്കലും മടുപ്പ് തോന്നിക്കത്തില്ല പിന്നെ എന്താ പറയുക നമുക്ക് എണ്ണേന്റെയും ഡീസലിന്റെയും ഒക്കെ പെട്രോളിന്റെയും ഒക്കെ ആ ആ ആ ഒന്നും അടിക്കുകയൊന്നും വേണ്ട പൈസ പോകില്ല നമുക്ക് കുറച്ചൊക്കെ അങ്ങനെ പൈസ ലാഭിക്കാം